ആ ഹലോ കേൾക്കുന്നുണ്ടോ ആ എവിടെന്നായിരുന്നു

എന്താ വേണ്ടത് സാധനങ്ങൾ എന്തെങ്കിലും വേണമായിരുന്നു അതിനാണ് വിളിച്ചത് ആ എന്തൊക്കെയാണ് പറഞ്ഞോളൂ

ആ രണ്ട് വേണമല്ലേ

ആ

മതിയല്ലേ ആ എപ്പോഴത്തേക്കായിരുന്നു വേണ്ടത് ഏത് ദിവസത്തേക്കാണ് വണ്ടത് ഇപ്പം തന്നെ വൈകുന്നേരത്തേക്കാണ് ആണോ അതോ രണ്ട് ദിവസം എത്ര ദിവസത്തേക്കാണ് ആ അങ്ങനെ ഹോം ഡെലിവറി ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ അങ്ങനെ വന്നെടുക്കാം ആ ഓഫറ് നിങ്ങൾ കുറച്ച് കൂടുതലായിട്ട് എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ഓഫറുണ്ട് അപ്പം പഞ്ചസാരയൊക്കെ എത്ര കിലോ ഏകദേശം വേണ്ടത്

ഏത് അരിയാണ് പച്ചരിയാണോ പുഴങ്ങലരിയാണോ കുത്തരി ഏതാണ് ആ മട്ട മതിയോ

ആ ആ പിന്നെ ചായപ്പൊടിയൊക്കെ എങ്ങനാണ് ഒന്ന് അളവ് അറിയും എത്ര വേണം എന്ന്

ഒരു കിലോ ആ കോൾഗേറ്റ് പേസ്റ്റ് എത്ര എണ്ണമാണ് ആ അതുണ്ട്

ഇതിപ്പം അരിക്കൊക്കെ ഞാൻ കണക്ക് കൂട്ടി പറയാം എത്രയാവന്ന് ഇരുപത്തി അഞ്ച് കിലോ ആ അരിക്കൊക്കെ അപ്പം അരിക്ക് ഇരുപത്തി അഞ്ച് രൂപയുടെ ന നിരക്കിലാണെങ്കിൽ ഇരുപത്തി അഞ്ച് കിലോയ്ക്ക് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് അഞ്ച് വരും കേട്ടോ അറൂനൂറ് രൂപൻ്റെടുത്ത് വരും പഞ്ചസാരക്ക് ഇപ്പം വില വരുന്നത് ഏകദേശം മുപ്പത്തി മൂന്നാണ് കിലോയ്ക്ക് പൊറ ആ ശരിക്കും ഇതിന് നാൽപ്പത്തി രണ്ട് കിലോ ഉണ്ട് പിന്നെ ഹോൾ സെൽ ആയിട്ട് എടുക്കുന്നത് കൊണ്ടാണ് മുപ്പത്തി മൂന്നിന് തരുന്നത് ആ അങ്ങനെ മാക്സിമം ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ

നിങ്ങൾക്ക് എത്ര മണിക്കാണ് വേണ്ടത് ആ ഒരു നാല് മണി ആകുമ്പോൾ അങ്ങനെയാണെങ്കിൽ എത്തിക്കാം ആ പിന്നെ എമൗണ്ട് എങ്ങനെ പേ ചെയ്യുന്നത് ഗൂഗിൾ പേ ആണോ അതോ നേരിട്ടാണോ തരുന്നത് ആ ഞാൻ എന്നാൽ ഇതിൽ അയച്ച് തരാം നമ്പർ വാട്സ്ആപ്പ് നമ്പർ അയക്കാം എത്ര കൂടെ ആ അയിന്ന് കണക്ക് കൂട്ടിയിട്ട് ആ ഓക്കെ ആ ഓക്കെ